ഹലോ ആരാണ് വിളിക്കുന്നത് ആഹ് എവിടെ നിന്നാണ് വിളിക്കുന്നത് എനിക്ക് മുൻപേ ഒരു കോൾ വന്നിരുന്നു ആലപ്പുഴക്കാരനാണ് ഇപ്പം ഇതാരാണ് സുധാകരനോ എന്താ എന്താ ജോലിയെന്താണ് ഉം ആഹ് ശരി എന്തുന്നാവശ്യങ്ങളുണ്ട് തരാനായിട്ട് ഡ്രസ്സോ ആഹ് ഉം ആഹ് ആഹ് ആഹ് ആഹ് അപ്പം അത് ഈ ചുരിദാർ ഐറ്റംസ് മെറ്റീരിയലാണോ അതോ എന്നാ റെഡി മേയ്ഡ് ഐറ്റമാണോ ഓ റെഡി മേയ്ഡിന്റെ വില എങ്ങനെയാണ് എവിടെയാണ് എവിടെ നിന്ന് ഇതു നിര്മ്മിക്കുന്നത് സം ഉം അതു പി ഇതു കാണാതെയെങ്ങനെയാണ് ഞങ്ങൾ വില പറയുന്നത് നിങ്ങൾക്കെങ്ങനെയേങ്കിലും താഴ്ന്ന് ആ വിലക്കെടുക്കാന് പറ്റുകയില്ല ആഹ് ആഹ് റെ പിന്നെ റെഡി മേയ്ഡ് ചുരിദാർ ഞങ്ങൾക്ക് കൂടുതലായിട്ടു വേണം റെ ഷര്ട്ടും അപ്പം അതിന്റെ കാറ്റലോഗ് അയച്ചു തരുമോ വാട്ട്സാപ്പ് നമ്പറിൽ അതിന്റെ റേറ്റും അപ്പം അതിന്റെ ഏതാണ് തിരുപ്പൂര് തിരുപ്പൂരിൽ നിന്നാണോ അതോ തീര് മച്ചമ്മാ തമിഴ്നാട്ടിലെ ഉം ഉം ഉം ഉം ഉം ബനിയൻ ഐറ്റം ഉണ്ടോ ബനിയന് ഇത് കോറല് ബനിയനുണ്ടോ കോ പട്ടു സാരി എവിടെ നിന്നുള്ളതാണ് വണ് കാഞ്ചീപുരം ഓ അത് കൂടുതൽ വിലയാണുള്ളതാണല്ലോ ഉം ഉം ഉം ഉം ഇതുണ്ടോ കോറല് ബനിയനുണ്ടോ അ കമ്പനിക്കാരുടെ ബനിയനില്ല അപ്പം അവിടെയുള്ള ഐറ്റംസ് പട്ടു സാരി ആഹ് പട്ടു സാരിയുണ്ടല്ലേ പ്രധാനമായിട്ടും ആഹ് ആഹ് പട്ടു സാരി റെഡി സാരി പറഞ്ഞിട്ടുണ്ട് കിട്ടിയോ അത് ആഹ് ഉം ഉം ഉം അപ്പം ചുരിദാറിന്റെയും ഷര്ട്ടിന്റെയും മെറ്റീരിയലും റെഡി മേയ്ഡ് ഐറ്റംസുണ്ട് അല്ലെ രണ്ടും മെറ്റീരിയലും റെഡി മേ റെഡി മേയ്ഡുമാണോ ഉം ഉം ഉം നല്ല സ്റ്റഫാണോ സ്റ്റഫ് ആഹ് ശരി എന്നു മുതൽ തരാന് പറ്റും ഒരു അനിഴ് സാമ്പിളുമായിട്ടു വരാന് പറ്റുമോ എല്ലാ ഐറ്റത്തിന്റെയും ഓരോ സാമ്പിളും ആയിട്ട് വന്നാലേ നമുക്കു കണ്ടു സംസാരിക്കാം ആഹ് ഡിസംബർ അഞ്ചാം തീയതി വൈകിയിട്ടു കാണാം അങ്ങനെയുണ്ടെങ്കിൽ ഡിസംബർ അഞ്ചാം തീയതി കാണാം ഓക്കെ ഓക്കെ ആഹ് ശരി